മലയാളഭാഷ പാടാണെന്ന് പറയുന്നത് അന്യ സംസ്ഥാനക്കാർക്കായിരിക്കും മലയാളഭാഷ പാടായിട്ട് വരുന്നത് അപ്പോഴൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് മലയാള ഭാഷ അവർക്ക് ഇംഗ്ലീഷാണ് കൂടുതലും താൽപ്പര്യം അവർ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം മറ്റു വിഷയങ്ങളേക്കാൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർ ഇംഗ്ലീഷ് അവർക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാകുകയും പെട്ടെന്നവർ കൈകാര്യം ചെയ്യാനവർ ഇഷ്ടപ്പെടുന്നു മലയാളഭാഷയെ സംബന്ധിച്ച് അതിന്റകത്ത് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ചില്ലുകൾ വൃത്തങ്ങൾ എന്നിവയെല്ലാംകൂടെ കൂടിച്ചേർന്ന് ഈ മലയാളഭാഷ പിന്നെ പഠിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ ഉള്ള ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിഹാരം എന്നു ചോദിച്ചാൽ അടിസ്ഥാനം തൊട്ടേ നമ്മുടെ കേരളീയർ ഒക്കെ കേരളീയ കുട്ടികൾക്ക് അടിസ്ഥാനംതൊട്ടേ മലയാളത്തിന്റെ അർത്ഥവും മലയാളത്തിൻ്റെ അക്ഷരങ്ങളുമൊക്കെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കിട്ടിയാൽ മാത്രമേ അവരിത് വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളു ഇപ്പോൾ എൽ കെ ജി യൂ കെ ജി തൊട്ടേ മലയാളഭാഷ ഞാൻ പഠിക്കാതെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തനിയെ പഠിച്ച് വരുന്നവർക്ക് ഈ വലിയ പാടായിട്ടൊക്കെ തോന്നും